മലയാള ഭാഷയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയുമായി ഹിന്ദിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടൊരു കാര്യമാണ് മലയാള ഭാഷ എന്നു പറഞ്ഞാല് കേരളത്തില് മാത്രം ഒതുങ്ങിനിൽക്കുന്ന ഒരു ഭാഷയാണ് അതായത് കേരളത്തിൽ നിന്നും മറ്റു വിദേശത്തേക്കു പോകുന്ന ആളുകള് ആളുകളൊഴികെ വിദേശത്ത് എവിടെയും സംസാരിക്കപ്പെടാത്ത മറ്റു സ്ഥലങ്ങളിലെവിടെയും മറ്റു സംസ്ഥാനങ്ങളില് സംസാരിക്കപ്പെടാത്ത ഒരു ഭാഷയാണ് മലയാളം എന്നാൽ ഹിന്ദി എന്നു പറഞ്ഞാല് ഇന്ത്യയുടെ ഒരുപാട് മേഖലകളില് വ്യാപിച്ചുകിടക്കുന്ന ഒരുപാട് ജനസംഖ്യകള് സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഹിന്ദി മറ്റു വ്യത്യാസങ്ങളെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഹിന്ദി താരതമ്യേന മലയാളത്തെക്കാൾ സംസാരിക്കാനും പഠിച്ചെടുക്കാനും എളുപ്പമാണ് എന്നാണു പൊതുവെ ആളുകളുടെ അനുഭവങ്ങളിൽ നിന്നും പറഞ്ഞുകേട്ടിട്ടുള്ളത് ഉദാഹരണത്തിന് മലയാളത്തിലെ ചില അക്ഷരങ്ങളും അക്ഷരങ്ങളൊക്കെ പുതിയ സംസാരിക്കുന്ന പുതുതായി ആ ഭാഷയെ മലയാള ഭാഷയെ പരിചയപ്പെടുന്ന ആളുകൾക്കു വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഉദാഹരണത്തിന് മലയാളത്തിലെ ആ വ്യഞ്ജനാക്ഷരങ്ങളില് വ്യഞ്ജനാക്ഷരങ്ങളില് ഉച്ചിരിക്കുന്നതിലാണ് അധിക പുതിയ പുതുതായി മലയാള ഭാഷയെ പരിചയപ്പെടുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാവുക ഉദാഹരണത്തിന് ഖ അതുപോലെയുള്ള അക്ഷരങ്ങൾ പിന്നെ ഴ അതുപോലെയുള്ള അക്ഷരങ്ങളൊക്കെ പുതിയതായി മലയാള ഭാഷയെ പരിചയപ്പെടുന്ന ആളുകൾക്കു വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന അക്ഷരങ്ങളാണ് ഹിന്ദിയെക്കുറിച്ചു പറയുകയാണെങ്കില് എഴുതുന്ന കാര്യത്തിലുള്ള ചെറിയ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാല് സംസാരിക്കുന്നതിൽ വളരെ പെട്ടെന്നു തന്നെ നമുക്കു മനസ്സിലാവുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നതും പെട്ടെന്നു തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നതുമായ കേട്ടു പഠിച്ചെടുക്കാൻ പറ്റുന്നതുമായൊരു ഭാഷയാണ് ഹിന്ദി മലയാളത്തേക്കാൾ വളരെയധികം എളുപ്പമാണ് എന്നാണു പൊതുവെ മലയാളികളിലും അതുപോലെത്തന്നെ മലയാളികളും മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളും ഇവിടെ വന്നു ജോലി ചെയ്യുന്ന ഹിന്ദി സംസാരിക്കുന്ന ജോലിക്കാരും ഒക്കെ പറയുന്ന ഒരു വിഷയമാണ് ഹിന്ദിയാണ് മലയാളത്തേക്കാൾ പഠിച്ചെടുക്കാനും കേട്ടുപഠിക്കാനും ഒക്കെ എളുപ്പം എന്നുള്ളൊരു കാര്യം പിന്നെ മറ്റു താരതമ്യങ്ങള് ചെയ്യുകയാണെങ്കില് മലയാളത്തില് ഒരുപാട് ഹിന്ദിയെക്കാൾ കൂടുതൽ ഹിന്ദിയാണു കൂടുതൽ സ്ഥലങ്ങളിലും സംസാരിക്കുന്നത് എന്ന വസ്തുത മനസ്സിൽ വച്ചുകൊണ്ടുതന്നെ മലയാളത്തിനു ഹിന്ദിയെക്കാള് കൂടുതൽ പ്രാദേശികമായ പ്രാദേശികമായ ഇനങ്ങളും പ്രാദേശികമായ സംസാര ശൈലികളും ഹിന്ദിയെക്കാൾ കൂടുതല് മലയാളത്തിനാണ് ഉള്ളത് എന്നുള്ളതു വളരെ ശ്രദ്ധിക്കേണ്ട വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെയാണ് മലയാളവും ഹിന്ദിയുമായി താരതമ്യം ചെയ്യുമ്പോൾ എടുത്തുപറയേണ്ട ചില കാര്യങ്ങൾ